എല്ലാ ആളുകളും അവരുടെ പഴയ തലമുറയിലോട്ടാണ് പോകുവാൻ ആഗ്രഹിക്കുന്നത് കാരണം എന്താണെന്നു വച്ചാൽ ഇന്നത്തെ കാലത്തുള്ള ഓരോ മാറ്റങ്ങളാർക്കും അംഗീകരിക്കാൻ അല്ലെങ്കിൽ ഈയൊരു തിരക്കേറിയ ജീവിതം ആർക്കും അംഗീകരിക്കാനോ അല്ലെങ്കിൽ അത് താല്പര്യപ്പെടുന്നില്ല അപ്പോൾ എല്ലാവരും പഴയ തലമുറയിലോട്ട് പോകുവാനാണ് ആഗ്രഹിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ എനിക്കും ഒരുപാട് ഓർമ്മകളുണ്ട് പണ്ടു ഞാൻ പണ്ടു ഞാൻ ചെറുതായിരിക്കണ സമയത്തു ഞങ്ങൾ തറവാട്ടിലായിരുന്നു താമസിച്ചിരുന്നത് ഒരുപാട് വലിയൊരു കുടുംബമായിരുന്നു ഞങ്ങളുടെ കൂട്ടുകുടുംബമായിരുന്നു അപ്പോൾ ഏകദേശം എല്ലാ സമയത്തും ഉത്സവങ്ങൾക്കും അല്ലെങ്കിൽ പരിപാടികൾക്കും മാത്രമല്ല ഏകദേശം എല്ലാ സമയത്തും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു വീട്ടിൽ ഏകദേശം ഒരു പത്തു പതിനഞ്ചുപേരുണ്ടായിരുന്നു തറവാടും വലിയ തറവാടായിരുന്നു ഒരുപാടു ഞങ്ങൾ ഞങ്ങൾ ഒരുപാട് കസിൻസ് ഞങ്ങളൊരുപാട് പേരുണ്ടായിരുന്നു അപ്പോൾ നല്ല രസമായിരുന്നു കാരണം എല്ലാത്തിനും നമ്മൾ ഒരിക്കലും ഒറ്റപ്പെടൽ നമുക്ക് നമുക്ക് തോന്നില്ല എപ്പോഴും നമ്മുടെ കൂടെ ആരെങ്കിലുമൊക്കെ ഉണ്ടാകും നമുക്ക് നമുക്ക് അച്ഛൻ എന്തെങ്കിലും നമ്മളെ വഴക്കു പറഞ്ഞാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ അവിടെ അമ്മ എന്തെങ്കിലും നമ്മളെ ചീത്തപറഞ്ഞാൽ നമുക്കവിടെ സപ്പോർട്ടിന് വല്യച്ഛനും വല്യമ്മയും കുഞ്ഞമ്മയും അതുപോലെ കൊച്ചച്ഛനും അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു മുത്തശ്ശനും മുത്തശ്ശിയും അങ്ങനെ ഒരുപാട് നല്ലൊരു ഓർമ്മകളാണ് എനിക്കിപ്പോഴും അത് തരുന്നത്